അപ്പോൾ ഞാന് വർഷങ്ങളുടെ അനുഭവം അനുഭവമല്ല നമ്മള് പഠിച്ച ചില കാര്യങ്ങൾ ഈ നീന്തല് പഠിക്കുന്ന സമയത്തല്ലങ്കിൽ ചെറിയ പ്രായത്തില് എല്ലാവർക്കും ഒരാവേശം ഉണ്ടാകും അതായത് ചെറിയ കുട്ടികളിപ്പോൾ ഒരു പത്ത് പതിനേഴ് വയസ്സ് മുതലൊക്കെയാണേൽ ചിലര് ചെറിയ നല്ല ചെറിയ പ്രായത്തിലക്കെ പഠിക്കും ഇപ്പോൾ എട്ടാം വയസ്സിലോ ഒമ്പതാം വയസ്സിലോ ഇപ്പോ നന്നേ ചെറുപ്പത്തില് ഞാനൊക്കെ നന്നേ ചെറുപ്പത്തിൽ പഠിച്ചതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പിന്നെ നമുക്കതൊരു ആവശ്യം ഉണ്ടാവും ഇല്ലാന്നല്ല ആവേശം കമ്മിയാകും പിന്നെ അതില് നമുക്ക് ചില പിന്നെ മടി പിടിക്കും അങ്ങനത്തെ കാര്യങ്ങള് എന്ന് പണ്ട് അല്ലേ സമയമെടുത്ത് പുഴയില് നീന്തി തുടിച്ച് ആർമാദിച്ച് കളിക്കണ ആ ഒരു രീതി പോയ് പോയ് പിന്നെ ജസ്റ്റ് പുഴയിലൊന്ന് കുളിക്കുന്നു വരുന്നു അതായത് ഒരു മ പണ്ടൊക്കെ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് വെള്ളത്തിൽ തന്നെ കളിച്ചിരുന്ന ആൾക്കാര് ഇപ്പം ഞാൻ നോക്കണ സമയത്ത് അവര് വരണു വെള്ളത്തില് എന്തിനോ വേണ്ടി കുളിക്കാൻ അതായത് ജസ്റ്റ് അവരുടെ ഒരു കർമ്മം ചെയ്ത് പോണു എന്നൊള്ളൊരു രീതിയില് ചെയ്ത് പോകുന്നു അപ്പോൾ അങ്ങനെ ഉള്ളൊരു മാറ്റം ഞാൻ പല ആൾക്കാരിലും കണ്ട് വന്നിട്ടുണ്ട് എന്തു കൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സമയം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇതിനോട് വേറെന്തിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും ഞാനിങ്ങനേന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ടും പുഴയില് തന്നെയാണ് കുളിക്കണത് ഇപ്പൊഴും പുഴയിൽ തന്നെയാണ് ഇപ്പോൾ അത്യാവശ്യം കലങ്ങാത്ത സമയത്തൊക്കെ പുഴയിൽ തന്നെയാണ് പുഴ അതായത് മാ നല്ല മഴയുള്ള സമയത്ത് മാത്രം ഇപ്പം അവിടെ നല്ല കലങ്ങി വരണ സമയമുണ്ട് അപ്പം ആ സമയത്തൊഴികേ ബാക്കി മിക്ക സമയങ്ങളിലും വെള്ളം നല്ല ശുദ്ധമായ വെള്ളാണെങ്കിൽ പുഴയിൽ തന്നെയാണ് കുളിക്കാറ് കലങ്ങി വരണ സമയത്ത് നമ്മള് പിന്നെ ഈ പുഴക്കിങ്ങനത്തെ പെട്ടന്ന് ചുഴീ ഉണ്ടാവാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം മഴക്കാലത്ത് അധികം അങ്ങോട്ട് പോകുക പുഴയിലിറങ്ങാതെ സൈഡിൽ നിന്നിട്ടെങ്ങാനും കടവത്തെങ്ങാനും നിന്നിട്ട് കുളിക്കുന്നതായിരിക്കും സേഫ് അപ്പം അതുപോലത്തെ ചില മാറ്റങ്ങളും പിന്നെ എന്താ പറയുക ഞാൻ പഠിച്ച് ഇതിൽ നിന്ന് പഠിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങള് നമ്മളെന്താണോ നീന്തല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് നമ്മുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് ചില സമയത്തത് കോ നല്ല രീതില് നല്ല എന്താ പറയുക നമ്മുടെ പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മള് ചെറുപ്പത്തില് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നല്ല രീതിയില് നീന്താനും കാര്യങ്ങളും പിന്നെ പിന്നെ അത് കമ്മിയായി കമ്മിയായി വരണ സമയത്ത് അതിനനുസരിച്ച് അത് കുറയും അതാണ് ഞാനിപ്പോൾ എൻ്റെ നീന്തല് അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരു അല്ലെങ്കിൽ ഉൾക്കൊണ്ട ഒരു പാഠം